എൻ്റെ രണ്ടാമത്തെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഹെഡ്ഫോണാണ് ഹെഡ്ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഉപയോഗമാണുള്ളത് ഹെഡ്ഫോണിന് നല്ല രീതിയിൽ പാട്ട് കേൾക്കാനും എല്ലാ കാര്യങ്ങളും നല്ലത് ഹെഡ്ഫോൺ തന്നെയാണ് അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ചെവിൻ്റെ ഉള്ളിൽ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കേൾക്കാനും എല്ലാകാര്യങ്ങളും കേട്ട് നമുക്ക് എന്താ പറയുക നമുക്ക് ഇപ്പോൾ എന്ത് പുറത്തുള്ളൊരു നോയ്സ് കേൾക്കാണ്ട് തന്നെ നമുക്ക് ഹെഡ്ഫോൺ വെച്ചു കഴിഞ്ഞാൽ കേൾക്കാം ഇപ്പോൾ ഹെഡ്ഫോൺ എന്ന് പറഞ്ഞാൽ പലതരം ഹെഡ്ഫോണുകൾ ഉണ്ട് നമ്മൾ ഇപ്പം മൊബൈലിലേക്ക് നേരിട്ട് കുത്തിവെക്കുന്ന ഹെഡ്ഫോൺ ഉണ്ട് അതാവുമ്പോൾ എന്താ പറയുക ഒരു ലാഗ് ഇല്ലാണ്ട് നമുക്ക് കേൾക്കാനുള്ള സൗകര്യം അതിനുണ്ട് പക്ഷേ അല്ലാണ്ടുള്ള ഹെഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് വഴിയുള്ള ഹെഡ് സെറ്റാണ് അത് ഇപ്പോൾ ഗെയിം അങ്ങനെ എന്തേലും കളിക്കുവാണെങ്കിൽ ചെറിയൊരു ലാഗ് അടിച്ചിട്ടാണ് ഹെഡ്ഫോൺ ഉണ്ടാവുക പിന്നെ ഇതിൻ്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ചെവിക്ക് ഭയങ്കര വേദനയായിരിക്കും വേദനയുള്ളത് കൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ആയിരിക്കും ചിലവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഫുള്ള് ഈ ഹെഡ് സെറ്റ് വെച്ചിട്ടാണ് എന്താ പറയുക പാട്ട് കേൾക്കലും എല്ലാ കാര്യങ്ങളും ഈ ഹെഡ് സെറ്റ് വെച്ചിട്ടാണ് അപ്പോൾ രാത്രിയൊക്കെ ഇത് കേട്ടോണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചെവി കേൾവിക്കുറവ് വളരെ അനുഭവപ്പെടാൻ ഉള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അത് കാരണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒക്കെ ഈ പ്രൊഡക്ടിൽ ഉണ്ട്